ഹലോ

അതേലോ

ആ ആയിക്കോട്ടെ ഓണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ജമന്തിയുണ്ട് പിച്ചിയുണ്ട് ജാസ്മിനുണ്ട് ചെണ്ടുമല്ലിയുണ്ട് വാടാമല്ലിയുണ്ട് ഈ ടൈപ്സാണ് കൂടുതൽ കൊടുക്കുന്നത് പിന്നെ റോസസ് ഉണ്ട് ഡിഫ്രൻറ്റ് ടൈപ്സ് ഓഫ് റോസസ്

ആ ചേച്ചിക്കാണെ താങ്കൾക്ക് ഏത് എങ്ങനെയാണ് ഫ്ലവേഴ്സ് വേണ്ടത് ചേച്ചി ചെണ്ടുമല്ലിക്കാണെങ്കിൽ കെ ജി വരുന്നത് വൺ ട്വൻറ്റി ആണ്

ബാക്കി ഫ്ലവേഴ്സിനൊക്കെ കൂടുതലാണ് കൂടുതൽ റേറ്റാണ് വരുന്നത് താങ്കൾക്ക് കുറെ എടുക്കുന്നെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തു തരുന്നതായിരിക്കും ആ കെ ജി കണക്കിനാണ് കൊടുക്കുന്നത് ഇപ്പം അങ്ങനാണ് കൊടുക്കുന്നത് ഓണ സീസൻ ആയത് കൊണ്ട് ആ അതെ ആ ഡിസ്കൗണ്ടിൽ ചെയ്ത് തരാം ഡിസ്കൗണ്ടിൽ ചെയ്ത് തരാം

ഒരു വൺ തൗസൻഡ് റൗണ്ടാക്കി തരാം

വാടാർമുല്ല ഇപ്പോൾ റ്റു റ്റൈപ്സ് കളറാ ഉള്ളത് താങ്കൾക്ക് ഏത് കളറാ ആവശ്യം ആ പർപ്പിളാണ് വേണ്ട വേണ്ടത് ലേ പർപ്പിളിന് കുറച്ചു കൂടെ റേറ്റ് കൂടുതലാട്ടോ വരുന്നത് കാരണം അത് റെയറായിട്ട് നമുക്ക് കിട്ടുന്നുള്ളു ഇപ്രാവശ്യം

ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് വരും ആ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡെലിവറി

ആ ഓക്കെ താങ്ക് യൂ